എൻ്റെ ഗ്രാമത്തിൽ ജലക്ഷാമം അതായതുവരള്ച്ച മൂന്നുനാലു വര്ഷം മുന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവർക്കും വെള്ളത്തിനൊക്കെ വളരെ നന്നായി ബുദ്ധിമുട്ടായിപ്പോയി

പഞ്ചായത്തു വക കൊണ്ടുവന്നു ടാങ്കിലും പൈപ്പിലുമൊക്കെ ആയിട്ട് ലോറിയിൽ ഓരോ വീടിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായി കാരണം പൈപ്പില്നിന്നു വെള്ളം തിരിച്ചെടുക്കുന്ന സ്ഥാനത്തു പാത്രം പുറത്തേക്കുച്ച് അതില് വെള്ളം എടുക്കാമെന്നുണ്ടെങ്കില് ഈയൊരു തലമുറയ്ക്കതു വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യമായിരുന്നു പഞ്ചായത്തിൻ്റെ പാത്രം വരുമ്പോഴേക്കും പുറത്തു പാത്രങ്ങളൊക്കെ നിരത്തിവയ്ക്കും എന്നിട്ടതിലേക്കൊക്കെ വെള്ളമെടുക്കലായിരുന്നു വല്ലാതെ ബുദ്ധിമുട്ടായി പശുവിനെ വളർത്തലും അതുപോലെ അങ്ങനത്തെ ജീവികളെ വളർത്തുന്നവരൊക്കെ വളരെ പ്രയാസപ്പെട്ടു അവർക്കൊക്കെ കുറേ ജീവികളൊക്കെ ചത്തു പോയി ഓ പശു ഒക്കെ കൊഴിച്ചില് അകിടുവീക്കം അങ്ങനൊക്കെ ഓരോ അസുഖങ്ങള് വന്നു പശുക്കളും കുറേ ചത്തുപോയി കാട്ടില് വെള്ളമില്ലാത്തതിനാല് കാട്ടില്നിന്ന് നാട്ടിലേക്ക് ജീവികളിറങ്ങി വന്നു തുടങ്ങി അവര് നാട്ടിലെ കൃഷിയൊക്കെ കഴിച്ചു കാട്ടിലും വെള്ളം കുറവായതുകൊണ്ടു കാട്ടിലും അവർക്ക് ആഹാരങ്ങളൊക്കെ കുറവായിപ്പോയതുകൊണ്ട് അവര് നാട്ടില് വന്നു നാട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു അതും ഒരുപാടു പ്രയാസമായി നാട്ടിലെ ജനങ്ങള് തന്നെ യാത്രകളൊക്കെ കുറച്ചു ചൂടു കൂടിയതുകൊണ്ടു സൂര്യതാപത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് നിത്യക്കൂലി ജോലിക്കു പോകുന്നവർക്കൊക്കെ അതു വളരെ പ്രയാസമായി അവര് ജോലി ഉപേക്ഷിക്കേണ്ടിവന്നു രാവിലെ പറഞ്ഞ സമയം പോയി പെട്ടന്നുതന്നെ നിർത്തിപ്പോരേണ്ട ഒരവസ്ഥ വന്നു വാഴകളൊക്കെ വല്ലാതെ ഉണങ്ങി നാശമായിപ്പോയി അതുപോലെയൊരു പച്ചില പോലും വളരെ അപൂർവ്വമായി കാണുന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഇപ്പോള് നാട് ഈ ഗ്രാമ ജീവിതത്തില് അതാകെ മാറ്റി മറിച്ചു കാരണം ഭക്ഷണപരമായിട്ട് സാമ്പത്തികപരമായിട്ട് മാനസികപരമായിട്ടൊക്കെ ഗ്രാമീണ ജനതയെ അതു വല്ലാതെ പ്രയാസപ്പെടുത്തും അതിനു ശേഷം പുഴയിലൂടെ തടയണ കെട്ടിയ

മഴവെള്ള മഴക്കിണറുകളുണ്ടാക്കിയും പിന്നീടുള്ള വർഷങ്ങളിൽ ആ ഒരു വളര്ച്ചയെ ഗ്രാമക്കാർ അതിജീവിച്ചു അതുകൊണ്ടു പിന്നീടെപ്പോഴും ഗ്രാമക്കാരും ഗ്രാമത്തിലുള്ള ജനങ്ങളും വെള്ളം ഉപയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു